സാർ ഗുഡ് മോർണിംഗ് ഞാന് സംസാരിക്കുന്നത് എറണാകുളത്തു നിന്നൊരു എറണാകുളത്ത് നിന്നാണേ എൻ്റെ എൻ്റെ ഫ്ലാറ്റില് ഒരു പത്തു പേര് താമസിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ബ്രോഡ് ബാൻറ്റ് കണക്ഷൻ വേണം അതിനായിട്ട് സാറ് ഒന്ന് എന്താ വേണ്ടതെന്ന് വച്ചാല് ഒന്ന് ചെയ്ത് തരണമല്ലോ സാറേ അപ്പോൾ ബ്രോഡ് ബാൻഡ് കണക്ഷൻ ഞങ്ങൾക്കെല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ് അപ്പം ഞങ്ങൾക്ക് സ്പീഡ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു സ്പീടില്ല അതിന് സ്പീഡ് കിട്ടത്തക്ക വിധത്തില് ഞങ്ങളുടെ ബ്രോഡ് ബാൻറ്റ് കണക്ഷൻ എത്ര എം ബി വേണോ അതിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരാൻ അതിനായി ഞങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് സാറൊന്ന് പറയുവാണെങ്കില് ഞങ്ങൾക്കത് അതിനെ കുറിച്ച് ഒന്ന് ഇത് ചെയ്യാമായിരുന്നു ഞാന് ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കാം അപ്പം സാറ് അതിന് ഞങ്ങളെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു